ഓരോരോ പ്രദേശത്താണെങ്കിൽ പോലും ഏതിനും ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വായനശാലകൾ ഉണ്ട് എൻ്റെ ഗ്രാമത്തിൽ പോലും വായനശാലകൽ ഉണ്ട് എൻ്റെ കോളേജ് സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം അല്ലെങ്കിൽ അത് എഴുതിയ ആളെന്ന് പറയുന്ന കെ ആർ മീര എം ടി വാസുദേവൻ നായർ ബഷീർ എം മുകന്ദൻ തുടങ്ങിയവരുടെ കൃതികളാണ് അതിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള കെ ആർ മീരയുടെ കഥകളാണ് ആരാച്ചാർ അതുപോലെ ഓർമ്മകളുടെ ഞരമ്പ് എന്നീ പുസ്തകങ്ങളാണ് എം ടി വാസുദേവൻ നായരുടെ കാലം എന്നു പറയുന്ന ആ സ്റ്റോറി ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെട്ടതാണ് അതുപോലെ തന്നെ ഓ ചന്ദുമേനോൻ്റെ ഇന്ദുലേഖ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് മുതലായ കൃതികൾ ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് കോളേജ് സമയത്താണ് ഏറ്റവും കൂതൽ ഞാൻ ലൈബറി യൂസ് ചെയ്തും അതിൽ ചിലവഴിക്കാൻ തുടങ്ങിയതും എനിക്ക് ഏറ്റും കൂടുതൽ കഥ നോവൽ അങ്ങനത്തെ കഥകളാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് നോവൽസ് ആയിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട് അമേരിക്കൻ വേൾഡ് വാറിൻ്റെ സമയത്ത് ഒരു പെൺകുട്ടി ആ സംഭവങ്ങളെ കുറിച്ചു ഒരു ഡയറി എഴുതുകയുണ്ടായി അത് ആ ഡയറി എന്നു പറയുന്നതിന് പർപ്പിൾ എന്താണ് കളർ ഓഫ് പർപ്പിൾ എന്നാണ് പുസ്തകത്തിന് പേര് അതിന് എന്താണ് പറയുക ഏറ്റവും കൂടുതൽ ഒരു ബെസ്റ്റ് അവാർഡ് പോലും കിട്ടിയിട്ടുണ്ട് കെ ആർ മീരയുടെ ഓർമ്മകളുടെ ഞരമ്പെന്ന് പറയുന്ന പുസ്തകത്തിലെ കഥ പറയുകയാണെങ്കിൽ അത് ഒരു വൃദ്ധയായ സ്ത്രീ അത് ആ വീട്ടിലേക്ക് പുതുതായിട്ട് വന്ന മരുമകളോട് തൻ്റെ കഥകൾ ആ മരുമകളായ വൃദ്ധയായ സ്ത്രീയെ സന്ദർശിക്കാൻ വന്നപ്പോൾ ആ മുറിയിലെ അന്തരീക്ഷങ്ങൾ അതു അല്ല അവരുടെ സ്വഭാവങ്ങളുടെ വൈകല്യം അതൊക്കെ ഒരു പെൺകൂട്ടി ശ്രദ്ധിക്കയും അതിന് എന്താവാം കാരണം എന്ന് ഓർത്തിരിക്കുകയും ചെയ്യുന്നു അതു അല്ല ആ സമയത്ത് മരുമക്കളായ അതായത് ആ വൃദ്ധ എങ്ങനെ ആ വീട്ടിലേക്ക് മരുമകളായി വന്നപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അതിനെ എങ്ങനെ അവർ ഓവർകം ചെയ്തു എന്നീ കാര്യങ്ങളാണ് അവർ അതിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പുസ്തകമെന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായരുടെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അനുഭവങ്ങൾ പോലും അദ്ദേഹം ഒരു കൃതിയിലൂടെ അത് ആ വിഷ്കരിക്കാൻ സഹായിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലാംഗ്വേജ് ആണെങ്കിലും അത് ഓരോ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളിൽ അദ്ദേഹം എങ്ങനെ ഒരു കഥാപാത്രത്തിന് കഥകളിലൂടെ ജീവൻ നൽകുന്നു അതെങ്ങനെ ഓരോ കഥാപാത്രത്തങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നു എന്നറിയാൻ ആയിട്ട് സഹായിക്കും അതിനു ശേഷം ഏറ്റവും കൂടുതൽ ഓജോ ബോഡെന്നു പറയുന്ന പുസ്തകമാണ് ഓജോ ബോഡ് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ഒരു പേടി ഉണർത്തുന്ന അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു പുസ്തമാണ് ഓജോ ബോഡ് അതൊരു ആ ഓജോ ബോഡെന്ന് പറയുന്ന മെറ്റീരിയല് എങ്ങനെ അതിലേക്ക് ഒരാൾ ഒരു സംഘം ആൾക്കാർ എത്തിച്ചേരുന്നു അതുവഴി എങ്ങനെ ആത്മാവായിട്ട് സംവാദിക്കുന്നു അവരെ എങ്ങനെ മനസ്സ് കാര്യങ്ങൾ അറിയപ്പെടുന്നു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു അവർ അതിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നു പറയുന്നുണ്ട് ദുരാത്മാക്കൾ മാത്രമല്ല നല്ല ആത്മാക്കളും ഓജോ ബോർഡിനോട് സംവദിക്കാൻ എന്നാണ് കഥ പറയുന്നത് അതായത് ഒരു ലണ്ടനിൽ പഠിക്കുന്ന ഒരാൾക്ക് കേരളത്തിൽ വന്ന പ്രേതങ്ങളെ കുറിച്ചു റിസർച്ച് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും അതിന് വേണ്ടി അതിനെ കുറിച്ച് ആളുകളെ ആളുകളെ എന്താണ് പറയുക അവിചാരിതമായി കണ്ടുമുട്ടുകയും ചെയ്യുന്നു അവർ ഒരു ഗ്രൂപ്പായിട്ട് ഒരു വില്ലയിൽ താമസിക്കും ആ രാത്രി കാലങ്ങളിൽ അവർക്ക് ഉണ്ടാവുന്ന ദുരനുഭവങ്ങൾ ഉണ്ട് ഉദാഹരണത്തിന് പുറത്ത് നോക്കുകയാണെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് കിണറിൽ ഒരാൾ ആൾ ഒരു പുരുഷൻ അല്ലെങ്കിൽ യുവാാവ് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന രീതിയിലുള്ളത് കാണിക്കും അവരെ ഭയപ്പെടുത്തുകയും മറ്റ് ശബ്ദങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നീടാണ് അവരെ കഥയിലേക്ക് വരുന്നത് അതായത് ആത്മാവായിട്ട് ഇവര് ഓജാ ബോർഡും മുഖാന്തരം ആശയവിനിയം നടത്തുമ്പോഴാണ് പറയുന്നത് ആ ആത്മാവ് ഒരിക്കലും ആത്മാവ് തന്നെ ഒരു ഇതിന് പുറം ലോകത്ത് പറയുന്നത് ഒരു മറ്റുള്ള കുട്ടികൾ കളിയാക്കിയത് മൂലം ഒരാൾ എന്താണ് പറയുക ആത്മത്യ ചെയ്തു എന്നായിരുന്നു പക്ഷെ ആ ആത്മത്യ ചെയ്ത ആത്മാവുമായിട്ട് ആശയവിനിമ നടത്തിയപ്പോഴാണ് ആ അയാളെ കൊന്നതാണെന്ന് പറയുന്നത് കൂടെ ഏഴ് പേരും ഉണ്ടായിരുന്നു ഇവർ കൂട്ടുകാർ ഇവരുടെ ഓരോ കൂട്ടുകാരെ കൊന്നിട്ട് ഈ വില്ലനെ കൊണ്ടു വന്നു ഇട്ടിട്ട് പുറം ലോകത്തിനോട് പറഞ്ഞു അത് ഇവർ തൂക്കിക്കൊന്ന യുവാാവ് ബാക്കിയുള്ള പിള്ളേരെ കൊന്നതാണെന്ന് പറഞ്ഞു പക്ഷേ സത്യത്തിൽ ഇവരുടെ ഇടയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നപ്പം ഈ യുവാവിൻ്റെ പിതാവ് ലോൺ മേടിച്ചു അങ്ങനെ ഇഷ്യൂസ് കൊണ്ടാണ് അതിനു ശേഷം ഈ ആത്മാക്കളെ കൊന്ന ആൾക്കാരെ ഈ കൂട്ടുകാരാണെങ്കിൽ പിടിച്ചു കൊടുക്കുകയും ആത്മാക്കൾ അവരെ കൊല്ലുകയും ചെയ്തെന്ന് അവസാനിപ്പിക്കുന്നു